കേരളത്തില് പല തരത്തിലുള്ള ആചാരങ്ങള് അനുഷ്ഠിക്കുന്നുണ്ട് സംസ്കാരിക ഉത്സവങ്ങള് അനുഷ്ഠിക്കുന്നുണ്ട് എന്ന് വച്ചാല് ഇപ്പം പ്രത്യേകിച്ച് പറയുകയാണെങ്കില് ഓണം പിന്നെ വരുന്നത് വിഷു വരുന്നുണ്ട് പിന്നെയിപ്പം വിഷു ക്രിസ്മസ് ന്യൂ ഇയറ് എന്നിവയെല്ലാം കാര്യങ്ങളും നമുക്കിപ്പോൾ കേരളത്തില് അനുഷ്ഠിച്ച് വരുന്നൊരു കാര്യമാണ് അതിനോടൊപ്പം തന്നെ ഉത്സവ ദിവസങ്ങള് ഇഷ്ടം പോലെ ഉത്സവ ദിവസങ്ങളുണ്ട് അതായത് അമ്പലത്തിൽ ഉത്സവങ്ങളുണ്ട് പള്ളിയിലെ പള്ളികളിലെ ഉത്സവങ്ങളുണ്ട് പിന്നെ ഇപ്പം പറയുകയാണെങ്കില് ഇപ്പം പറയുകയാണെങ്കില് അമ്പലത്തിലെ ഉത്സവങ്ങളെല്ല കാര്യങ്ങളും നടന്നു പോയിക്കൊണ്ടിരിക്കുന്നു അപ്പം ഇതെല്ലാം ഉത്സവങ്ങളുടെ ഒരു ഘോഷയാത്രയാണ് എന്ന് പറഞ്ഞാല് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കാരണം ഇപ്പോള് എനിക്ക് തന്നെ ഇപ്പോള് ശൂ നോക്കുവാണെങ്കില് ഒരുത്സവ ദിവസം എ നിങ്ങള്ക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും എനിക്ക് ഇപ്പോൾ എന്റെ തന്നെ എനിക്ക് തന്നെ ഏറ്റവും വലിയൊരു ഉത്സവമായിട്ട് വരുന്നത് എന്റെ പള്ളിയില് നടക്കുന്ന പെരുന്നാളുകളാണ് കാരണം പള്ളിയില് നടക്കുന്ന പെരുന്നാളുകള്ക്ക് അതിൻറ്റേതായ സവിശേഷതകളുണ്ട് പള്ളിയില് നടക്കുന്ന ആചാരാനുഷ്ഠാനങ്ങള് ദൈവത്തിന് വേണ്ടി സമര്പ്പിക്കുന്ന പ്രാര്ത്ഥനകള് ദൈവത്തിന് വേണ്ടി സമര്പ്പിക്കുന്ന മെഴുക് തിരി മെഴുക് തിരി ദൈവത്തിന് വേണ്ടി സമര്പ്പിക്കുന്ന കുന്തിരിക്കം എന്നിവ എല്ലാ കാര്യത്തിനും വളരെ വളരെ അനിവാര്യമായ പ്രാധാന്യം നല്കി കൊണ്ടാണ് ഞങ്ങള് ആചാരങ്ങള് അനുഷ്ഠിക്കുന്നത് ദൈവത്തിന് വേണ്ടി നടത്തുന്ന റാലികള് ദൈവത്തിന് വേണ്ടി നടത്തുന്ന നടയാത്രകള് എല്ലാം നമുക്ക് അനിവാര്യമായ കാര്യമാണ് കാരണം എന്തുകൊണ്ടാന്നു ചോദിച്ചു കഴിഞ്ഞാല് ഇതൊക്കെ ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന ഓരോ ആചാരാനുഷ്ഠാനങ്ങളും വളരെ ഭംഗിയോടെ ദ ഹൃദയത്തില് തൊട്ട് ചെയ്യാന് ഞങ്ങളാഗ്രഹിക്കുന്നതാണ് അതിനോടൊപ്പം തന്നെ ഉത്സവങ്ങള് ഉത്സവങ്ങള് ധാരാളം ഉത്സവത്തിന് സമയത്ത് ഒരുമിച്ച് ഒത്തുകൂടി അതിനെ അനുഷ്ഠിക്കുകയും അതിന്റെ ഒ അതിന്റെ അതിൻറ്റേതായ പ്രത്യേകതകളിലേക്ക് അലിഞ്ഞ് ചേരാന് ആഗ്രഹിക്കുന്നതുമായ ആചാരങ്ങളില് നില്ക്കുന്ന ഒരു കക്ഷി വ്യക്തികളാണ് ഞങ്ങള് ഓരോരുത്തരും അതിനോടൊപ്പം തന്നെ അതിന്റെ കൂടെ തന്നെ അതിന്റെ അതിന്റേതായ രീതിയില് അതിനെ മാറ്റൊരി കൊണ്ട് വരാനും ആസ്വദിക്കാന് അതിനെ ആസ്വദിക്കുവാനും അതിനോടൊപ്പം തന്നെ ഒരു ഒരു അതിന് വേണ്ടി തന്നെ പ്രയത്നിക്കാനും കഴിയുന്ന ഒരു ഒരു ഒരു ഒരു രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഓരോരുത്തരും അതിനൊടൊപ്പം തന്നെ ഉത്സവങ്ങള് എപ്പോഴും ഒരു നിറം കൊണ്ടുവരും നിറം കൊണ്ടു വരുന്നൊരു കാര്യമാണ് കാരണം ഉത്സവങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാന് കഴിയും നമ്മുടെ കേരളത്തിന്റെ സാംസ്കാരിക വൈവിധ്യങ്ങളും വിശേഷ വിശേഷണങ്ങളും എല്ലാം കാരണം ഉത്സവം തന്നെ ഒരു ഒരു ഒരു ഒരു ഒരു തലമുറയ്ക്ക് നമ്മള് പകര്ന്നു കൊടുക്കുന്ന ഒരു ഒരു തലമുറയ്ക്ക് നമ്മള് പകര്ന്നു കൊടുക്കുന്ന ഒരു ഒരു ഒരു അനിവാര്യമായ കാര്യമാണ് ഇങ്ങനെയൊക്കെ ആണ് നമ്മുടെ നാട്ടില് ഉത്സവങ്ങള് നടക്കുന്നത് അതിന്റെതായ രീതിയിൽ ആണ് നടക്കുന്നത് ആ രീതിയില് നമ്മള് ഉത്സവം ച് ഉത്സവം ഉത്സവത്തിലേക്ക് കടക്കുമ്പോള് ആ ഉത്സവത്തിന്റെ ഓരോ രീതിയില് നമുക്ക് കൂടുതലായിട്ടും നമുക്ക് ഇതിനെ ഒരു ഇമ്പോ ഒരു രീതിയിൽ നമുക്ക് പ്രത്യേകതകള് കൊടുക്കാനും കഴിയും ആ പ്രത്യേകളിലൂടെ നമ്മള് കടന്ന് പോകുമ്പോഴ്ത്തേനും ആ ഉത്സവത്തിന് കുറെയും കൂടെ അര്ത്ഥവത്തായ കാര്യങ്ങള് സംഭവിക്കും ഉത്സവത്തിന് എപ്പോഴും ഒരര്ത്ഥമുണ്ട് നമ്മുടെ ജീവിതത്തില് ആ ഒരു അര്ത്ഥത്തില് നമുക്ക് ചെയ്യാന് കഴിയുന്നത് കൊണ്ടാണ് അതിന്റെ ഉത്സവ വിശേഷങ്ങള് എപ്പോഴും ഒരു ഇംപ് ഒരു കാര്യമായി മാറുന്നത്